ആരായിരുന്നു ആ ആ ഫുഡ് ഐറ്റംസും ഉണ്ട് നമുക്ക് എല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് അതായത് നമുക്ക് പിന്നെ നമുക്ക് കടലില് നിന്ന് പിടിച്ചപാടെ നമ്മൾ അതായത് എല്ലാം കറി വയ്ക്കുന്നതൊക്കെയാണ് കായലില് നിന്നും കായലിൽ നിന്നും അങ്ങനെ അതായത് എല്ലാം നമ്മള് ഫ്രഷ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോള് നിങ്ങള് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളപ്പം അത് ഉണ്ടാക്കി തരും ഓ കക്ക ഇറച്ചി ഉണ്ട് പിന്നെ പ്രോൺ എങ്ങനെ വേണമെങ്കിലും ഉണ്ട് അത് പിന്നെ ഫ്രൈ ആയിട്ടുണ്ട് അല്ലാണ്ട് നമുക്ക് മസാല പോലെ അതായത് ഉണ്ട് പിന്നെ കക്ക ൻ്റെ ബിരിയാണി ഉണ്ട്

ഉണ്ടാക്കി വെച്ചതായിരിക്കില്ല പിന്നെ നമുക്ക് ബിരിയാണി ഒക്കെ നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും അതായത് ഫിഷ് ബിരിയാണി അതേപോലെ പ്രോൺസ് ബിരിയാണി അങ്ങനെ എല്ലാത്തരം ബിരിയാണികളും ഉണ്ടാവും

ഓ പാര്സല് കിട്ടും നിങ്ങള് എവിടുന്ന് വിളിക്കുന്നതാണ് ന്ന് വിളിക്കുന്നതാണല്ലേ ആ ആ ആ ഉണ്ടോ ഇങ്ങോട്ട് വരാന് ഉദ്ദേശിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറിലേക്ക്

ഓ ഉണ്ട് നമുക്ക് അതായത് ട്വൻറ്റി ഫോർ അവേഴ്സും ഉണ്ട് തിങ്കള് തൊട്ട് പിന്നെ ഞായറാഴ്ച വരെ എല്ല എല്ലാ ദിവസവുമുണ്ട് സണ്ഡേസ് ഒക്കെ ഓപ്പൺ ആണ്

നമുക്ക് പിന്നെ ഡിഷ് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്നില്ല ഡിഷസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ബീച്ച് സൈഡ് തന്നെയാണ് നമ്മുടെ പിന്നെ റെസ്റ്റൊറന്റ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാം ഞാൻ ഞാൻ എന്താണ് അല്ല അത് അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നാലും ഉണ്ട് നമുക്ക് ബിരിയാണിക്കൊക്കെ വൺ ഫിഫ്റ്റി ഒക്കെയേ വരുന്നുള്ളൂ അപ്പം മാം എന്തായാലും എന്തായാലും വാ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമുക്കെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും അവിടുന്നൊക്കെ വരുന്നതല്ലേ ഓ അതൊന്നും ഒരു കുഴപ്പമേ അല്ല മാം ഒന്ന് വരുമ്പം ഇങ്ങോട്ട് നമുക്ക് ഞങ്ങൾ വേണമെങ്കിൽ ലൊക്കേഷൻ ഇട്ട് തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആ ഓക്കെ ആ ഓ ഇട്ടുതരാം ഓക്കെ താങ്ക് യൂ മാം